നെയ്ത് നെയ്ത്തൊരു കലതന്നെയാണ് കാരണം നമുക്ക് ഇപ്പം വീവ് ചെയ്യാനായിട്ട് പലതരം സ്കില്ലും കാര്യങ്ങളും ഇല്ലാതെ നമുക്കത് ചെയ്യാനാകില്ല ഇപ്പം കഥകളിക്കും അല്ലാതെ പല ആർട്സിലും നമുക്കത് ഉപയോഗിക്കാനും പറ്റാറുണ്ട് അപ്പം അതൊരു കലയല്ലായെന്നു പറയാൻ പറ്റില്ല എല്ലാ എല്ലാം നമ്മൾ ക്രീയേറ്റ് ചെയ്തെടുക്കുന്നതാണ് അത് ഒരു കലാ രൂപമാണ് നമ്മളൊരു ചെറിയൊരു ചിത്രം വരക്കുന്നതോ ഒരു പേപ്പർ കൊണ്ടൊരു സാധനമുണ്ടാക്കുന്നതും എല്ലാം കലയാണ് അപ്പം വീവിങ്ങ് എന്നു പറയുന്നതും അതേപോലൊരു കല തന്നെയാണ് അതിനും നമുക്ക് അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും അതെങ്ങനെ നമുക്ക് നേരെ ചെയ്തു കൊണ്ടു പോകാമെന്നും എല്ലാം പഠിച്ച് നമ്മളെടുക്കും അപ്പം അത് കലയല്ലായെന്നു പറയാൻ പറ്റില്ല കലതന്നെയാണ്